ഹലോ ആ മാത്യു അല്ലേ ആ ആ ഇത് സെബാസ്റ്റ്യൻ ആണ് മനസ്സിലായോ ആ അതുതന്നെ അതുതന്നെ ആ ആ മാത്യുവേ എനിക്കേ ഒരു വായ്പയ്ക്ക് വേണ്ടി ഡിജിലോക്കറിൽ ഇരിക്കുന്ന അത് പാൻ കാർഡ് ഒന്ന് എടുക്കണമല്ലോ ആ അതിൻ്റെ നടപടി ക്രമങ്ങൾ എങ്ങനെയാണ് ഞാൻ അപേക്ഷിക്കണോ അത് പ്രത്യേക അപേക്ഷ ഉണ്ടോ അതോ സാധാരണ ഇതിൽ അങ്ങ് അപേക്ഷിച്ചാൽ മതിയോ അപ്പം അതിനേ അതിനെന്നെ ഒന്ന് സഹായിക്കണമല്ലോ അതിനെന്തൊക്കെ നടപടി ക്രമങ്ങളാണ് വേണ്ടത് ആ ആ ആ ആ ചെയ്തേക്കാം ചെയ്തേക്കാം ആ നാളെ തന്നെ ആയിക്കോട്ടെ ആ ശരി താങ്ക് യു താങ്ക് യു